ഇന്ത്യയിലെ ചെറുപ്പക്കാരൊക്കെ ഇപ്പോൾ ആഗ്രഹിക്കുന്ന എന്താണെന്നു വച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു യൂട്യൂബറ് ഒരു വ്ളോഗറൊക്കെ ആവാൻ വേണ്ടിയിട്ടായിരിക്കും കാരണം ശരീരം കയ്യൊന്നും അനങ്ങാതെ നമുക്ക് ഫെയ്മസായിക്കൊണ്ട് ഒരുപാട് വരുമാനം കിട്ടുന്നതും തീർച്ചയായിട്ടും ഇപ്പോൾ യൂട്യൂബ് ഒക്കെയാണ് ഇന്ത്യയിലെ ഒട്ടുമിക്ക ചെറുപ്പക്കാരും ഇപ്പോൾ യൂട്യൂബറാവാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലാണ് എൻ്റെ തന്നെ ഒരു കൂട്ടുകാരൻ ഹബീബ് അഷ്ക്കർ ടെക്കിയെന്ന് പറഞ്ഞ യൂട്യൂബ് ചാനലുണ്ട് അവനിപ്പോൾ ഏകദേശം വൺ മില്യൺ സബ്സ്ക്രൈബറുണ്ട് അവനിപ്പം കാറ് സ്വന്തമായിട്ട് വീട് ഫ്ലാറ്റ് അവനിപ്പം നല്ലൊരു പൊസിഷനിലാണ് അപ്പോൾ അതൊക്കെ കാണുമ്പം നമുക്കെന്തായാലും എല്ലാ ചെറുപ്പക്കാർക്കും യൂട്യൂബറാവാനും നാലാളു കൂടിനിൽക്കുമ്പം നമ്മളെ തിരിച്ചറിയുന്നതും അതൊക്കെയാണാഗ്രഹം ഇന്ത്യയിലിപ്പോൾ ഏറ്റവും കൂടുതലും ദിവസേന ഓരോ വ്ളോഗർമാരെങ്കിലും കൂടിക്കൂടി വരികയാണ് എല്ലാ ദിവസവും യൂട്യൂബ് ചാനല് തുടങ്ങുന്നു പുതിയ പുതിയ ആൾക്കാർ യൂട്യൂബറ് ഉണ്ടായി വരുന്നു അതിൽ കുറേപേരൊക്കെ രക്ഷപ്പെടുന്നു അതൊക്കെ കാണുമ്പം നമുക്കെന്തായാലും യൂട്യൂബറാകാൻ വേണ്ടിയിട്ട് ഒരുപാടാഗ്രഹം ഇപ്പോഴത്തെ ചെറുപ്പക്കാർക്കുണ്ട് പെട്ടെന്നു വരുമാനമുണ്ടാക്കാം അതുപോലെത്തന്നെ ശരീരം അനങ്ങണ്ട പണിയെടുക്കണ്ട വെയിലുകൊള്ളേണ്ട എളുപ്പമാണ്